എനിക്ക് വാർത്താ മാധ്യമങ്ങളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമെന്നു പറയുന്നത് പാട്ടു മത്സരങ്ങൾ മ്യൂസിക്കൽ ഷോസും അതു പോലെ തന്നെ സിനിമകൾ കോമഡി സ്കിറ്റുകൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെയാണെനിക്കേറ്റവും കൂടുതൽ ഇഷ്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം നമുക്കൊരു ടെൻഷനുള്ള സമയത്തൊക്കെയാണ് നമുക്കൊരു വിഷമമുള്ള സമയത്താണെന്നുണ്ടെങ്കിലൊരു പാട്ട് കേൾക്കുന്നതോ ഒരൂ സിനിമ കാണുന്നോ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു റിലാക്സേഷനാണ് ശരിക്കും തരുന്നത് അപ്പം ഒരു ഒരു സിനിമ ഒരു പാട്ട് കാണുകയാണെങ്കിൽ പാട്ടിൻ്റെ വരികളൊക്കെ ചിലപ്പം നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് കൂടുതലൊരു കോൺഫിഡൻസ് തരുന്നതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഊർജ്ജസ്വലമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിഷമത്തിൽ നിന്നു മറികടക്കാൻ പറ്റുന്ന ഒരു ഒരു എന്തെങ്കിലൊരു ഒരു ഘടകം ഒരു പാട്ടിനകത്ത് ഒക്കെ നമുക്ക് ഉൾപ്പെട്ടിരിക്കാം അപ്പം പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാനസിക ആശ്വാസത്തിന് അല്ലെങ്കിൽ സന്തോഷത്തിനിത് ഹെൽപ്ഫുള്ളാണ് വളരെ ഹെൽപ്ഫുള്ളാണ് അതു പോലെ തന്നെ എന്താ ഇപ്പോഴൊരു സിനിമ കാണുകയാണ് ഇപ്പം നമ്മളൊരു സിനിമ കാണുന്ന ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ അതിൻ്റെ കഥാമൂല്യങ്ങളെ പറ്റി അറിഞ്ഞിട്ടാകാം അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പരസ്യമോ പാട്ടൊക്കെ കണ്ടിട്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ ആയിരിക്കും നമ്മളൊരു സിനിമ നമ്മളെ പ്രചോദപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളൊരു നടനായിരിക്കും അതിനകത്തഭിനയിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി മൂവിയാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലൊക്കെ ഒരു കഥയാണ് അതിനകത്തു വരുന്നതെന്നുണ്ടെ അറിഞ്ഞാന്നെ എനിക്ക് അതിനകത്ത് ആ സിനിമ പോയി കാണാനായിട്ടൊരിൻട്രസ്റ്റ് തോന്നാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ മി ശരിക്കും പറഞ്ഞാൽ നമ്മുടൊരു മനസ്സിൻ്റെ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ നമ്മുടൊരു ബോറഡി മാറ്റുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമുക്കൊരു ഇപ്പം എന്താ നമുക്കൊരു ഒരു വിഷമ ഘട്ടങ്ങളുണ്ടാകുകയാണെങ്കിൽ നമുക്കാ രീതിയിൽ അതൊരു മറി കടക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്കീ വിനോദാവി വിനോദവി ബാധികളൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പംഅതൊരു സിനിമ കാണുകയാണെങ്കിൽ സിനിമ ഒരു സിനിമയ്ക്ക് അത്രയും നല്ല വശങ്ങളുണ്ടാകാം ചീത്ത വശങ്ങളുണ്ടാകാം നല്ല വശങ്ങളെന്നു പറയുമ്പം എന്താ അതിനകത്ത് ഇപ്പോഴൊരു ഒരു കുടുംബത്തെ നന്നായിട്ട് നോക്കുന്ന മകനാണ് ആ ഒരു മകൻ എന്തെങ്കിലൊരു പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നത്തിൽ നിന്നു മറികടക്കാനായിട്ട് സാധിക്കുകയാണ് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും പ്പ ഹാൽമാത്തയിലേക്ക് ഇപ്പോൾ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സിനിമ കാണുന്നവരുണ്ടെങ്കിൽ ഇതു നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്കതു കൊണ്ട് പാട്ട് മ്യൂസിക് ഷോ പിന്നെ കോമഡി സ്കിറ്റുകൾ ഞാൻ കോമഡി നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് തമാശ നല്ല രീതിയിൽ ജീവിതത്തിൽ പറയുന്ന ആളുമാണ് ആ ഒരു ഇതിൽ അപ്പം നമ്മൾ ഞാൻ കോമഡി സ്കിറ്റുകളൊക്കെ വളരെ നന്നായിട്ട് സ് എൻജോയ് ചെയ്യാറുണ്ട് അപ്പം മെയിനായിട്ടും മ്യൂസിക്കൽ പ്രോഗ്രാംസ് സിനിമകൾ അതു പോലെ തന്നെ കോമഡി സ്കിറ്റുകളിതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്താ ഞാൻ കൂടുതലായിട്ടും ഈ സിനിമ അല്ലെങ്കിൽ ടി വി പോലെയുള്ള മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാറ് ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നു പറഞ്ഞാൽ കോമഡി സ്കിറ്റുകളാണ് അതു പോലെ തന്നെ സിനിമകളുമാണ് സിനിമ എനിക്ക് കൂടുതലും ത്രില്ലർ മൂവീസാണ് ഏറ്റും ഇഷ്ടം അവരെങ്ങനെയൊരു കുറ്റകൃത്യം ചെയ്തത് കണ്ടു പിടിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരത് ചെയ്യുന്നതു കണ്ടു പിടിക്കുന്ന രീതികൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്